ഞാ സാർ ഞാനേ ഏലിയാമ്മ എൻ്റെ ആധാര് പുതുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെ അതിൻ്റെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെ ഇതുവരെ അതിൻ്റെ ഒരപ്ഡേറ്റും ലഭിച്ചിട്ടില്ല അപ്പൊന്ന് ആധാർ അപ്ഡേറ്റിൻ്റെ സ്റ്റാറ്റസൊന്ന് പരിശോധിക്കണം എൻ്റെ രസീത് നമ്പര് വേണേങ്കില് ഞാനിപ്പോള് അയച്ചുതരാം എൻ്റെ ഇപ്പോള് ഞാൻ പറഞ്ഞു തരാം എൻ്റെ ആധാറിൻ്റെ നമ്പര് ആറ് അഞ്ച് നാല് പൂജ്യം ഒന്ന് എട്ട് ഏഴ് ആറ് അഞ്ച് ആണ് അതൊന്ന് എനിക്ക് നോക്കിയിട്ട് അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില് എന്നെ അറിയിക്കുക ഇല്ലെങ്കില് അത് ശരിയായിട്ടുണ്ടെങ്കില് അതൊന്ന് ക അറിയിക്കുകയും ചെയ്യണം കേട്ടോ